ഞാൻ ഒരു കാർ ബുക്ക് ചെയ്യാൻ വന്നതാണ് ഗുരുവായൂർ പോവാനാണ് എത്ര പൈസയാവും എന്നുള്ളതൊന്ന് പറയണം പിന്നെ രാവിലെ ആറു മണിയാവുമ്പോഴേക്ക് ഗുരുവായൂരില് എത്തണം അവിടെ വഴിപാട് കഴിച്ചിട്ട് അവിടന്നെന്നെ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടല് ഞങ്ങള്ക്ക് പറഞ്ഞുതരിക എന്നിട്ട് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേറെ രണ്ടമ്പലം കൂടിയുണ്ട് പോവാന് ആ അമ്പലം കൂടീം പോയിക്കഴിഞ്ഞിട്ട് വേണം വീട്ടിലേക്കെത്താൻ അപ്പോഴേക്ക് എത്രയാവും സമയം എന്നുള്ളത് അറിയില്ല എന്നാലും അത് കഴിഞ്ഞിട്ട് വേണം പോരാൻ പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനൂണ്ട് അപ്പോള് അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് വേണം പോരാന് അപ്പോള് എത്ര പൈസയാകും എന്നുള്ളത് കൂടി പറയണം എന്നിട്ട് വേണം ഞങ്ങൾക്ക് പോരാന് പിന്നേ അവിടെനിന്ന് പോരുമ്പോള് വേറെ ഒരു മഞ്ചേരി കാളികാവുണ്ട് ഒരമ്പലം അതിലും കൂടി പോയിട്ട് വേണം ഞങ്ങൾക്ക് പോരാന് അപ്പോള് എത്രയാവും പൈസ എന്നുള്ളതും പറയണം പിന്നെ നല്ല ഭക്ഷണം കഴിച്ചിട്ട് വേണം വീട്ടിലേക്ക് തിരിച്ചുപോരാൻ